അതെയല്ലോ പറഞ്ഞുകൊള്ളൂ ആ സാർ പറഞ്ഞുകൊള്ളൂ സാര് എന്തായിരുന്നു സാർ അയ്യോ സാർ നമ്മളങ്ങനെ സാധാരണ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മള് റൂം കൊടുക്കാറുള്ളത് സാറിന് മിസ്റ്റേക്ക് പറ്റിയതാണോ അതോ അയ്യോ സാർ നമ്മള് സാധാരണ ഇതിനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മള് ആളെ വെച്ചിട്ടുണ്ട് സാർ അപ്പം നമ്മള് ക്ലീൻ ചെയ്ത് എൻഷൂർ ചെയ്തല്ലാതെ നമ്മളിത് സാധാരണ കൊടുക്കാറില്ല സാർ അപ്പം അത് സാറിന് എന്താണത് അങ്ങനെയെന്ന് അയ്യോ അയ്യോ സാർ സാര് അങ്ങനെ വിചാരിക്കല്ലെ സാർ ഓ സോറി അങ്ങനെയല്ല സാർ സാധാരണ നമ്മള് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മള് കാരണം കസ്റ്റമര് പോകുമ്പോള്ത്തന്നെ നമ്മള് റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങളാളെ വെച്ചിട്ടുണ്ട് സാർ അപ്പം റൂം ക്ലീൻ ചെയ്തിട്ട് അയ്യോ സാർ സാറൊന്നും വിചാരിക്കരുത് സാർ ചിലപ്പോള് സാർ സാറിനിപ്പോള് സാറിനിപ്പോള് വേണമെങ്കില് സാർ ആദ്യം സാറിനോട് ഞാൻ സോറി പറയാം ചിലപ്പോള് തിരക്കിൻ്റെ പേരില് സാര് അപ്പോള് ചിലപ്പോള് ഇങ്ങനെ മാറി പോയതായിരിക്കും സാർ സാര് അപ്പം സാർ സാർ അയ്യോ സാർ സാര് അറിയാതെയൊരു തെറ്റ് പറ്റിയതാണ് കാരണം തിരക്കുള്ള സമയമായിരുന്നു സാർ അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഷെഡ്യൂള് ചെയ്തപ്പോഴത്തേനും പെട്ടന്നൊരിത് പറ്റിയതാണ് അല്ലാതെ അങ്ങനെ വിചാരിച്ചിട്ടല്ല സാർ സാർ സാറിപ്പം ഞങ്ങള് സാറിപ്പം ഇപ്പം ഞാനെന്നാല് സാർ സാറെ അങ്ങനെയല്ല സാർ സാറിപ്പം വേണമെങ്കില് ക്ലീൻ ചെയ്യാം റൂം സാറിപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വിട്ടേക്കാം സാറിപ്പം സാർ സാർ കോമ്പൻസേഷൻ സാർ ആ സാർ സാർ അങ്ങനെ ഒരിതിലേക്ക് പോകരുത് സാർ കാരണമെന്താണെന്നുവെച്ചാൽ സാർ സാർ പെട്ടെന്ന് ഒരിതില് കാരണം സാറിനറിയാമല്ലോ സാർ ഇപ്പം ന്യൂ ഇയര് ഒക്കെ കഴിഞ്ഞുള്ള സമയമാണ് സാർ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം അതിൻ്റെ പെട്ടെന്നുള്ള ഇതില് അതെ സാർ അതെ സാർ സാറിനോട് ഞാൻ സോറി പറയുകയാണ് സാർ പക്ഷേ സാർ തിരക്കിൻ്റെ അഭാവത്തില് സാറിനറിയാമല്ലോ സാര് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ ഒരു ഇൻസിഡൻ്റ് ഇങ്ങനെയുണ്ടാകുന്നത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ അയ്യോ സാറെ അങ്ങോട്ടൊന്നും സാർ സാറിനിപ്പം വേണമെങ്കില് സാറിന് റൂം വേറെ തരാം അല്ലെങ്കില് സാർ ഇപ്പോള് ഞാൻ ഒരാളെ വിടാം റൂം ക്ലീൻ ചെയ്യാനായിട്ട് സാർ അപ്പം എങ്ങനെയാണ് അയ്യോ സാർ സാർ അപ്പം ഏ സാറെ നമ്മുടെ എംപ്ലോയിസിൻ്റെ ഇത് കൊണ്ടായിരിക്കും സാർ അല്ലാതെ നമ്മളങ്ങനെ സാറിന് നമ്മുടെ കസ്റ്റമേഴ്സെല്ലാം സാറൊക്കെ നമ്മുടെ റെഗുലർ കസ്റ്റമറാണല്ലോ സാര് അപ്പോളങ്ങനെ നമ്മള് ചെയ്യുമെന്ന് സാര് പ്രതീക്ഷിക്കരുത് ഒരിക്കലും നമ്മളെപ്പോഴും മാക്സിമം അങ്ങനെയാണ് നോക്കുന്നത് സാറിപ്പോള് ഒരു മിസ്റ്റേക്ക് പറ്റി അങ്ങനെ വല്ലതും പറ്റിയതായിരിക്കും സാർ സാർ സാർ സാര് അങ്ങനെ സാര് അപ്പോള് സാര് അത് കംപ്ലൈൻറ്റ് ചെയ്തത് നമ്മളറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സാർ അല്ലെങ്കില് ഇപ്പോള് സാർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവോ മുമ്പേ ആ ഓക്കേ ആ സാര് അപ്പോള് നമ്മളുമായിട്ട് സാർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കും സാർ സാർ സാറിനിപ്പം എന്താണ് ചെയ്യേണ്ടത് സാറിന് റൂം ചെയ്ഞ്ച് ചെയ്യണമോ അതോ തരണമോ ഇപ്പം അതോ റൂം ചെയ്ഞ്ച് ചെയ്യണമോ അതോ ഇപ്പോള് ക്ലീൻ സാർ സാറിനിപ്പം സാറിപ്പോള് വെയ്റ്റ് ചെയ്യൂ ഞാനിപ്പം കോൾ കട്ട് ചെയ്തിട്ട് വിളിക്കാം സാറിനെ വിളിക്കാം ഓക്കേ ഓക്കേ